ബില്ല് പിന്നെ മരുന്നിനു വേണ്ടീട്ട് ഞാന് വരുമാനം മാറ്റി വെയ്ക്കാറില്ല കാരണം ഗവണ്മെന്റ് ആശുപത്രിയില് പോയിട്ടുണ്ടെങ്കില് എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങള്ക്ക് മരുന്ന് കിട്ടുന്നുണ്ട് നമ്മൾ അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് വല്യ ഇത് കുഴപ്പമില്ലാതെ സര്ക്കാര് ആശുപത്രി കേന്ദ്രങ്ങളില് നമുക്ക് സൗജന്യ മരുന്നാണ് കിട്ടുന്നത് സൗജന്യ ചികിത്സ സൗജന്യ മരുന്ന് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പേ ഈ പിന്നെ ഗൈ ഈ പ്രൈവറ്റിൽ പോകുമ്പോഴും പുറത്തോട്ടു നമ്മൾ പുറത്ത് വേറെ പുറത്ത് ഒരു ഡോക്ടറെ കാണുന്നു ഡോക്ടറെ വീട്ടിൽ പോയി കാണുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുറത്തോട്ടു മരുന്ന് എഴുതി തരുന്നത്

കുറച്ചു പൈസ ചിലവായിട്ടു വരും എങ്ങനെ പോയാലും ഒരു നൂറു രൂപേന്റെ ഉള്ളിൽ നമ്മൾ പോയിട്ട് വരും ഓട്ടോറിക്ഷക്കാണ് പോകുന്നതെങ്കിൽ കുറച്ചു ആഡംബരം ആണത് അല്ലാതെ നമ്മൾ ബസിനാ പോകുന്നതെങ്കിൽ പത്തും പത്തും ഇരുപത് രൂപയെ ആവുന്നുള്ളൂ ഒരു ഇരുപത്തഞ്ച് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അത്രയേ വരുന്നുള്ളൂ നമുക്ക്